രാത്രിയിൽ ഒറ്റക്കായിരുന്നു ആ സമയത്ത് എനിക്കാരും കൂട്ടില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ഡ്രൈവറോടു പറഞ്ഞു എനിക്ക് ഈ ഇന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങണമെന്ന് ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞിട്ടു ഞാൻ പറഞ്ഞപ്പോൾ അവരാണ് ഹോസ്പിറ്റലിൽ തൻ അവിടെത്തന്നെ ഇറങ്ങി ഇറക്കി എന്നിട്ടു ഞാനാണ് ഹോസ്പിറ്റലിലോട്ടു കയറിപ്പോകുന്നിടം വരെ ആ മനുഷ്യർ എനിക്കു വേണ്ടി വെയിറ്റ് ചെയ്തു ഞാൻ കയറി അകത്തു ചെന്നൊന്നു ഞാൻ സുരക്ഷിതയാണെന്ന് അറിഞ്ഞപ്പോഴാണ് അവർ ആ വണ്ടിയെടുത്തു കൊണ്ട് അവിടെ നിന്നു പോയത് അതു കാരണം എനിക്കവരോട് ഒത്തിരി നല്ല ഒരു മനസ്സു നല്ലൊരു മനുഷ്യനാണ് ഒത്തിരി നന്ദി കാരണം വെച്ചാൽ എന്നെയൊരപകടം കൂടാതെ എന്നെയവിടെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുകയും എനിക്കു വേണ്ട നിർദ്ദേശങ്ങൾ തരികയൊക്കെ ചെയ്തതിനു അവരോടൊത്തിരി നന്ദി പറയുന്നു